ഹലോ ആ ഞാൻ ഓണത്തിന് കുറച്ച് പർച്ചേസിംഗിന് വേണ്ടിയാണേ അപ്പം നമുക്ക് എന്തെങ്കിലും ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മ് മ് മ് തെർട്ടി പെർസെൻറ്റേജ് ഉണ്ടല്ലേ ആ ആ കോംബോ ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ടല്ലേ ആ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ എത്രയിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടിക്ക് ടെൻ മന്ത് ആയിട്ടുള്ളൂ ബോയ് ആണ് ആ ത്രിപിൾ സിക്സ് തൊട്ട് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഫുൾ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി ആയിരുന്നേ ഓണത്തിന് ആ അതെ അതെ അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനെ സമ്മാനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം ഓണത്തിന് കൂപ്പൺ ആ അല്ല കൂപ്പൺ എന്താണ് എന്താണ് കിട്ടുന്നത് കൂപ്പൺ എടുത്തിട്ട് ആ ടൂ വീലർ അല്ലേ ആ നമ്മളോട് കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാൺ സിൽക്സ് അല്ലേ അപ്പം അവിടുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടി വിയിലൊക്കെ പരസ്യം ഉണ്ടല്ലോ അപ്പം അത് കണ്ടിട്ട് ഒന്ന് വിളിച്ച് നോക്കിയതാണ് അപ്പം നമ്മൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെ വരാനാണ് അപ്പം അവിടെ ഡ്രസ്സ് ഹ്മ് അവരൊക്കെ പറഞ്ഞത് സത്യം ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ചിലപ്പം ഹാ ഹാ ആ ആ ഹാ ഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൺഡേ ഒക്കെ ഓപ്പൺ ആയിരിക്കും അല്ലേ ഇപ്പം ഓണം ആയതുകൊണ്ട് ആ തിരക്ക് കൂടുതലായിരിക്കും അല്ലേ ആണല്ലേ ഹ്മ് ഹ്മ് ഹ്മ് ഹ്മ് നമുക്ക് ആ ലേഡീസിന്റെ ഡ്രസ്സിനൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് എത്രയാണ് ആണല്ലേ ധാവണി അങ്ങനെ ഉണ്ടോ ധാവണി സെറ്റ് പിന്നെ അത്ര വരും അല്ലേ ആ ആ പിന്നെ ഈ മെറ്റീരിയൽ മുറിച്ച് മുറിച്ചെടുക്കുന്നത് ഒക്കെ കുറേ വന്നിട്ടുണ്ടോ പീസുകളൊക്കെ കുറേ വന്നിട്ടുണ്ടോ ആ ആ ഓക്കേ എന്നാൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ വരാം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ വരാം ഓക്കേ ഓക്കേ താങ്ക് യൂ